എനിക്ക് എല്ലാ ചെടികളും ഇഷ്ടമാണ് പക്ഷേ കൂടുതലും ചെടികളെ കാട്ടിലും എനിക്കിഷ്ടം പച്ചക്കറികളോടാണ് കാരണം പച്ചക്കറി നമുക്ക് ഈ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെയുള്ള വളം ചിലവാക്കുമ്പഴേ വളവും വാങ്ങാനുള്ള വരുമാനം പച്ചക്കറിയിൽ നിന്ന് നമുക്ക് കിട്ടും പ്രധാനമായും അതുതന്നെയാണ് പിന്നെ ചെടി വെറുതേ പൂവും കാ ഇതായിട്ട് ഭംഗിക്കിങ്ങനെ നിൽക്കും എന്നല്ലാതെ വളർ നമുക്ക് ഒരു ഒരു വരുമാനം കൂടിയാണ് ഈ പച്ചക്കറിയാകുമ്പോൽ നമുക്ക് വീട്ടിലേക്കാവശ്യമുള്ള എല്ലാ പച്ചക്കറിയും നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് വീട്ടിലേക്കാവശ്യമുള്ള എല്ലാ സംഗതിയും കിട്ടും ചെടി പിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ടാവും പൂവായിട്ടും നല്ല ഇലകള് കളർഫുള്ളായിട്ടുമൊക്കെയായിട്ട് കാണാൻ ഭംഗിയുണ്ടാകും എന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ചതിനോട് വലിയൊരു ഗുണം ഒന്നും ഇല്ല കാഴ്ചയ്ക്ക് വീട്ടിൻ്റെ മിറ്റത്ത് കാണുമ്പം നല്ലൊര് ഭംഗിയൊക്കെ ഉണ്ടാകും പക്ഷേ പച്ചക്കറി അങ്ങനെയല്ല പച്ചക്കറി നമ്മള് ഭക്ഷണത്തിന് വേണ്ടുന്ന എല്ലാ പച്ചക്കറിയും നമുക്ക് കൃഷി ചെയ്ത് നമുക്കുണ്ടാക്കാൻ പറ്റും കുറഞ്ഞ സ്ഥലവുണ്ടായാൽ മതി ഒന്നുമില്ലെങ്കിലും വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിലൊക്കെയായിട്ട് പച്ചക്കറി നമുക്ക്ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് കൂടുതലും പച്ചക്കറികളോടാണ് എനിക്ക് ഇഷ്ടം താത്പര്യം ഞാന് കൂടുതലും പച്ചക്കറികൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്